ഇന്ത്യ എന്ന് പറയുമ്പം തന്നെ നമുക്ക് അറിയാം ഇന്ത്യയിൽ കുറേ സംസ്കാരങ്ങളുണ്ട് കേരളം വേറെയാണ് തമിഴ്നാട് വേറെയാണ് എല്ലാറെ സംസ്കാരവും വേറെ വേറെ ആണ് ഉത്തരേന്ത്യയിൽ പോയാൽ നമ്മൾ അവിടെ കാണുന്ന പോലെ ഒന്നും അല്ല വേറെ ചൂടുള്ള സ്ഥലങ്ങളുണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ കേരളത്തിൽ നല്ല പച്ചപ്പ് ആണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിൽ ഭയങ്കര ചൂടാണ് മരുഭൂമിയാണ് നമ്മളെ അവിടെ കുറേ തെങ്ങുണ്ട് പക്ഷെ ഉത്തരേന്ത്യയിൽ തന്നെ ഹിമാലയത്തിൽ എന്തൊരു തണുപ്പാണ് മഞ്ഞ് വീഴ്ച്ച ഉണ്ടാവാറുണ്ട് പിന്നെ അതിൻ്റെ താഴ്വരയിൽ താമസിക്കുന്നവരൊക്കൊ ഉണ്ട് നമ്മുടെ ഇവിടെ വർഷാ വർഷം നല്ല മഴ തെക്ക് പടിഞ്ഞാറൻ മൺസൂണൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ തീരെ മഴയില്ലാത്ത സ്ഥലമാണ് രാജസ്ഥാൻ അതുപോലെ തന്നെ ബീഹാർ ഒക്കെ എന്നാൽ നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി അവിടെ ആണെന്നുണ്ടങ്കിൽ എല്ലാ വർഷവും എല്ലാ സമയവും മഴയുണ്ട് എന്നാണ് പറയുന്നത്